ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നൂറ് മീറ്റർ ഓട്ടം ഇരുനൂറ് മീറ്റർ ഓട്ടം അതുപോലെ റിലേ അങ്ങനെയുള്ള കായിക ഇനങ്ങളിൽ എല്ലാം പങ്കെടുക്കാറുണ്ട് ഇതിനു വേണ്ടി അവർ വീടുകളിൽ നിന്നും വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ ഓട്ടം പ്രാക്ടീസ് ചെയ്യാറുമുണ്ട് അതുമൂലം ഇവരുടെ ആരോഗ്യസ്ഥിതി നല്ലപോലെ മെച്ചപ്പെടുന്നു നല്ലൊരു ആരോഗ്യമുള്ള കുട്ടികളായി ഇവര് വളരുന്നു ഇവരെ നല്ല ആരോഗ്യമുള്ള ഫുഡുകളും ഇവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ ആരോഗ്യം ചെറുപ്രായത്തിൽ തന്നെ മികച്ച ഒരു ഇതായി മാറുന്നു ചെറുപ്പ ചെറുപ്രായത്തിൽ തന്നെ നല്ല ആരോഗ്യമുള്ള വിദ്യാർത്ഥികൾ കുട്ടികളായി ഇവര് വളർന്നു വരുന്നു അത് പിന്നീട് ഇവരുടെ സ്ഥിതി ആരോഗ്യസ്ഥിതി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വലുതാവുമ്പോഴും നല്ല ആരോഗ്യമുള്ള ആളുകളായി ഇവര് മാറുന്നു